ആ ഞാൻ ഇത് ഡാൻസ് ടീച്ചറാണോ അ അതെ ആണല്ലേ അ ഞാൻ ആ ഞാൻ ഒരു കഥകളിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ആയിരുന്നു അതിന്

ആ ഇതിപ്പം എല്ലാ ദിവസവും ഞാൻ പഠിക്കാൻ വരുന്നില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പൈസ കുറച്ച് കുറയുവായിരിക്കുമല്ലോ ഇല്ല എന്തായാലും ചിലവ് കുറവുള്ളതല്ല അ തുക തുക വരും പക്ഷേ അതിനേക്കാളും കൂടുതൽ ഇത് എത്ര എത്ര ഇപ്പം ഒരു ആള് നേരത്തെ പഠിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് അത്രയും പൈസയുടെ ആവശ്യം ഇല്ലല്ലോ കാശ് പിന്നെ കുറച്ചു മതിയല്ലോ അപ്പം

അ ആ അ ഇതിപ്പം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതായതു കൊണ്ട് ഒത്തിരി നമുക്ക് പൈസയുടെ ഒത്തിരി ആവശ്യം വരുന്നില്ലല്ലോ ഒത്തിരി ആവശ്യം വരുന്നത് എന്ന് വെച്ചാൽ ഇത് നമ്മൾ പൈസ കൊടുത്തു വാങ്ങിക്കുന്നതല്ല പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പച്ചിലകൾ അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് എന്തായാലും അത്ര ഞാൻ നേരത്തെ കുറച്ചു പഠിച്ചേക്കുന്നത് പകുതി വരെ പഠിച്ചതാണ് ബാക്കി എനിക്ക് ബാക്കി അപ്പോൾ ആദ്യം തൊട്ട് വീണ്ടും പഠിക്കണ്ടല്ലോ അന്നേരം അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൈസ കുറയ്ക്കാൻ ഓ ഞാൻ ഞാൻ ഞാൻ വേറൊരു സ്ഥാപനത്തിൽ അന്വേഷിച്ചപ്പോൾ അവർ അത്ര ഒന്നും അത്ര ആകത്തില്ല എന്നാണ് പറഞ്ഞത് കാരണം ഞാൻ കുറച്ച് പഠിച്ചതുകൊണ്ട് ഞാൻ കുറച്ച് പഠിച്ചിരിക്കുന്നതാണ് അത് നിലവാരം കുറഞ്ഞ സ്ഥാപനം ഒന്നും അല്ല അത് കലാമണ്ഡലത്തിലെ ആൾക്കാർ തന്നെ പഠിപ്പിക്കുന്ന തന്നെ ഒരു സ്ഥാപനമാണ് അപ്പോൾ അതിന് അവർ പറഞ്ഞു അത്രയും പൈസ കുറച്ച് കൊ അ ആയിക്കോട്ടെ ആയിക്കോട്ടെ